ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതിനേപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാനാളൊരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് പല രീതിയിലുള്ളത് അത് പ്രാക്റ്റിക്കലതെല്ലാം എന്തു മാത്രം എഫക്റ്റീവാകുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പ്രാക്റ്റിക്കലാണെന്നും എല്ലാ കാര്യങ്ങളും നമുക്കുപകാരപ്രദമാണെന്നും പറയാനായിട്ടു സാധിക്കുകയില്ല അപ്പം പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്റ്റിക്കലായിട്ടു മുന്നോട്ടു പോകുമ്പോഴാണ് നമുക്കുപകാരപ്രദമാകുന്നത് കൊച്ചിയിലേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചു നോക്കുകയാണെങ്കിലും നമ്മൾ പല രീതിയെ പല കാര്യങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ ലെവലിൽ നോക്കിയാലും കെമിസ്ട്രി ലെവലിൽ നോക്കിയാലും ഏതു രീതിയിലും നോക്കിയാലും നമ്മൾ കുറേ ഏറെ തിയറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ടാക്കി അതിനേ നമ്മൾ പരീക്ഷക്കു വേണ്ടി ഒരുങ്ങി പ്രിപ്പെയർ ചെയ്ത് നല്ല മാർക്ക് മേടിച്ചു നമ്മൾ പോകാറുണ്ട് പക്ഷേ അതെന്തു മാത്രം പ്രവർത്തന മണ്ഡലങ്ങളിലേക്കു കൊണ്ടു പോകാൻ സാധിക്കുന്നുവെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനേപ്പറ്റി വലിയ അഭിപ്രായമെനിക്കു പറയാൻ പറ്റത്തില്ല പിന്നെ മറ്റുള്ള സ്ഥലത്തേ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരെയെന്നു പറഞ്ഞാൽ അവർ കുറച്ചും കൂടി പ്രാക്റ്റിക്കൽ ലെവലും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടു പോകുന്നൊരന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഏ പഠനം വിത്ത് പ്രാക്ടിക്കൽ ആ രീതിയിൽ കൊണ്ടു പോകുകയാണേ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇച്ചിരി മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഹൈ സ്കൂളിലേക്കൊക്കെ കയറുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പം ഹാഫ് ഡേ പഠിച്ചതിനു ശേഷം ഉച്ച കഴിഞ്ഞവർ വർക്ക് ചെയ്യാൻ പോകുന്ന അന്തരീഷം അതുപോലെയുള്ളതൊക്കെ ഒരൂ കുറച്ചും കൂടി കാഴ്ച്ചപ്പാടുകളൊക്കെ മുന്നോട്ടു കൊണ്ടു പോകുകയാണെങ്കിൽ നമ്മുടെ ഗുണനിലവാരം കുറച്ചും കൂടി ഉയരും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുറച്ചും കൂടൊരു കാര്യപ്രാപ്തി വരും അവരെരേ നല്ല രീതിയിൽ നമുക്ക് വളർത്തി മുന്നോട്ടു കൊണ്ടു പോകാനായിട്ടു സാധിക്കും ഇപ്പോൾ കൂടുതലും കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കൊറോണക്കു ശേഷം കാണുന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോണിൻ്റെയൊക്കെയാണെങ്കിലും അമിത ഉപയോഗം മൂലം അവരൊക്കെ ആണെങ്കിലും വേറൊരു രീതിയിലോട്ടാണവരുടെ കാഴ്ച്ചപ്പാടും രീതികളുമെല്ലാം മാറുന്നത് പെട്ടെന്ന് അവർക്ക് ഇമോഷൻ ലെവലിലൊക്കെ നിയന്ത്രിക്കാനൊക്കെ പറ്റാതെ വരുന്നത് ഇതൊക്കെ അതേ സമയം നമ്മുടെ പാഠ്യ പദ്ധതിയിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മൂല്യാവബോധം കൊടുക്കുന്ന അതുപോലെ പ്രാക്റ്റിക്കലും കൂടൊന്നിച്ചു കൊടുക്കാം നമ്മൾ പരീക്ഷയിൽ മത്സരബുദ്ധിയാണ് പൊതുവേ കാണുന്ന മത്സര ബുദ്ധിയേക്കാളുപരി കുഞ്ഞുങ്ങളേ ധാർമ്മികരായിട്ട് മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തുകയൊക്കെ രീതിയിലുള്ള പാഠ്യ പുസ്തകങ്ങൾ പാഠ്യ രീതികളൊക്കെ ഉൾപ്പെടുത്തുകയും അതു പോലെയൊക്കെ പ്രാക്റ്റിക്കലാക്കാൻ പറ്റിയുള്ള അന്തരീക്ഷമത് സംജാതമാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടു വരാൻ പറ്റും എന്നാണ് മത്സരം അത് പരീക്ഷയെന്നു പറയുന്ന വലിയ മത്സരത്തെ ഭയത്തോടെ നോക്കിക്കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങളേ അത് അതത്ര നല്ല തല്ല എന്നു തന്നെയാണെനിക്ക് പറയാനുള്ളത് കൂടുതലും കുഞ്ഞുങ്ങളേ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടു കൊണ്ട് പോകാനായിട്ട് നമുക്ക് നല്ല കാര്യപ്രാപ്തിയോടു കൂടി കുഞ്ഞുങ്ങളേ നിയന്ത്രിക്കാനും കൊണ്ടു പോകാനായിട്ടും കുഞ്ഞുങ്ങളേ വളർത്താനും മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളേ വാർത്തെടുക്കാനും സാധിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കുഞ്ഞുങ്ങൾക്കു കൊടുക്കണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം